കരകൗശല നിർമ്മാണ ത്തില് നമുക്ക് സഹായങ്ങള് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മള് ചെയ്ത് കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൺചട്ടി നിർമ്മാണം മൺചട്ടി പാത്ര നിർമ്മാണം അതുകൂടാണ്ട് തന്നെ പ്രതിമ നിർമ്മാണം രൂപങ്ങളുടെ കൃഷ്ണ വിഗ്രഹം ഗണപതി വിഗ്രഹം അങ്ങനത്തെ അതിൻ്റെ സാധനങ്ങള് എങ്ങനെയാണ് നമുക്കൊരു ചെയ്യാൻ പറ്റിയിരുന്നിട്ടുണ്ടായിരുന്നത് പണ്ട് കാലങ്ങളില് അതില് നമുക്ക് അത് ചെയ്യുന്നതിനോടുകൂടി വർക്കുകള് ഉണ്ടായിരുന്നു ആൾക്കാർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ആ കാലങ്ങളില് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് നമുക്കിപ്പോൾ ആൾക്കാരുടെ ഇഷ്ടമില്ലായ്മ അതിനോട് താൽപര്യം ഇല്ല പുതിയ പുതിയ സാധനങ്ങളുടെ വരവ് അതോടുകൂടി നമുക്ക് വർക്കുകളില്ലാണ്ടായതോടുകൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും സഹായങ്ങളൊക്കെ കുറഞ്ഞു നമുക്ക് വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും വർക്കുകള് കുറഞ്ഞു അതൊക്കെയാണിപ്പം കണ്ടുവരുന്ന വർക്കില്ലായ്മ ആൾക്കാർക്ക് പുതിയ മോഡേൺ സാധനങ്ങള് വന്നപ്പോൾ പഴയതിനോട് താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതാണ് സംഭവം